ആ പറയൂ

ആ പറയൂ എന്തേ വിളിച്ചത് അതെന്തേ അതിനൊക്കെ ക്ലാസ് ലീവാക്കാ ഇപ്പോൾ എക്സാം ആവാനായിട്ടുണ്ട് പോർഷൻസൊന്നും തീർന്നിട്ടില്ല എല്ലാ റിവിഷൻ്റെയൊക്കെ ടൈമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ലീവെടുത്താൽ അത് എക്സാമിനെ ബാധിക്കില്ലേ നിങ്ങൾ വലിയ ആൾക്കാർ വേണ്ടേ ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കാൻ പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ ശരിയാവുക അതിപ്പോൾ നാളെ എക്സാമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടീനെ കൊണ്ട് പോവുമോ അപ്പോൾ നിങ്ങൾ വേണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറ്റിക്കൂടെ ഇനിയിപ്പോൾ റിവിഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ച് ദിവസം ക്ലാസ് ലീവ് വേണം അപ്പോഴിനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ വേറെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല നമ്മളിവിടെ കംമ്പെയിൻ സ്റ്റഡിക്ക് ഗ്രൂപ്പാക്കുന്നൊക്കെയുണ്ട് ഉം ഉം ഉം ഉം ഉം അല്ല ഇനിയിപ്പോൾ കുട്ടീനെ വിടാനല്ലാതെ വേറൊരു വഴിയും ഇല്ലേ വിടാതിരിക്കുകയല്ലാതെ ആ പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ ഇതാക്കുന്ന പോർഷൻസൊക്കെ നിങ്ങൾ പേരെൻസ് അത് കവർ ചെയ്ത് കൊടുക്കണ്ടി വരും പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല

ഉം ഓക്കെ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ നമ്മൾ നേരത്തെ തരണം നിങ്ങളൊരു ലെറ്ററെഴുതിയിട്ട് നമുക്ക് മെയിലയച്ചാൽ മതി നമ്മുടെ സ്കൂളിൻ്റെ ഐ ഡിയിൽ തന്നെ മെയിലയച്ചാൽ മതി അപ്പോഴേക്കും എല്ലാം അത് നമ്മൾ നേരിട്ട് ഫോർവേഡ് ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഏതായാലും ഞാൻ അത് ഞാനത് എന്നാലിന്ന് ഞാനത് മെയിലയച്ചോളാം നിങ്ങൾ അശ്വിൻ്റെ കയ്യിൽ അത് ലെറ്ററെഴുതി കൊടുത്താൽ മതി അടുത്ത ദിവസം വരുമ്പോൾ വേണ്ട വേണ്ട ആ അതെ അതെ കാര്യം മാത്രം മതി അപ്പോൾ അത് അത് മതി അത് മതി ഓക്കെ ആ ആ